ഇരുപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴ് അഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എട്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത് നാല് രണ്ടായിരം ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്